കാരുണ്യ പദ്ധതി ഞങ്ങൾക്കുപകരിച്ചിട്ടുണ്ട് അത് സർക്കാരിൽ നിന്ന് നല്ലൊരു ഉപകാരമായിരുന്നു ആദ്യം അച്ഛന് അറ്റായ്ക്ക് വന്ന ടൈമിൽ ഞങ്ങൾ പൈസ ഒന്നും എടുക്കാൻ ഇല്ലായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി അപ്പോഴത്തേനും പറഞ്ഞു ഇൻഷുറൻസിന്റെ കാർഡുണ്ടായി ഞങ്ങളുടെ ആരോഗ്യ ഇൻഷുറസാണ് കാണിച്ചപ്പം കാരുണ്യയുടെ ഈ കാർഡ് കാണിച്ചിട്ടു പറഞ്ഞു പൈസ ഒന്നും വേണ്ട ആദ്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവുമവസാനമാണ് പൈസ തരുന്നത് അതും ആ ഇതുണ്ടെന്ന് പറഞ്ഞ പകുതി പൈസ ആണ്ട് തന്നാൽ മതി അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ കാണിച്ചതിന് ഈ കാർഡ് കാണിക്കുക നമുക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീയായിട്ടാണ് കിട്ടികൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഓരോരോ മരുന്നുകളും കാര്യങ്ങളും എല്ലാം ലാബീന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ഫ്രീയായിരുന്നു പിന്നെ ലബോറട്ടറിയടച്ചതിനും ആ മരുന്നും പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീയായിട്ട് കിട്ടി പിന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെളിയിൽ നിന്നു മേടിക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഈ കാർഡ് കാണിച്ചാൽ മതിയായിരുന്നു ലാസ്റ്റ് സർക്കാരിൽ നിന്ന് ആ ഒരു ഫണ്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു വെളിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും മേടിക്കണമെന്നാണേലും മെഡിക്കൽ സ്റ്റോറിന്നാണേലും എങ്ങനെ മേടിക്കണമെന്നാണേലും ആ ഒരു പദ്ധതി എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിലാണ് ഗുണം ചെയ്യുന്നത് കാരുണ്യ പദ്ധതി വന്നതോടു കൂടി കുറെ പേർക്ക് ആരോഗ്യനിലയും ആരോഗ്യത്തിൽ വന്ന കാര്യങ്ങളെല്ലാം പെട്ടന്ന് എല്ലാർക്കും കൊണ്ട് കാണിക്കാൻ ഉള്ള ധൈര്യം വന്നു കാരണം ഇൻസുറൻസ് കിട്ടുമെന്നുള്ള ധൈര്യം ഉണ്ടായി എല്ലാർക്കും